ഒരു കുഞ്ഞിന് അമ്മയിൽ നിന്ന് ലഭിക്കുന്ന മുലപ്പാല് പോലെയാണ് ഒരു കുഞ്ഞിന് അവൻ്റെ മാതൃഭാഷ മറ്റെന്തിനെകാളിലും ഉപരി അവൻ്റെ ജീവിതത്തിന് പോഷണവും പോഷകവുമായി തീരേണ്ടതാണ് അവൻ്റെ മാതൃഭാഷ മറ്റു ഭാഷകളെല്ലാം തന്നെ നമുക്കാണെങ്കില് ദൂരങ്ങളിലുപയോഗിക്കാമെങ്കിലും നമ്മുടെ ജീവിതത്തിന് ദൈന്യംധിരി നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഒട്ടി ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ മാതൃഭാഷ തന്നെയാണ് മാതൃഭാഷയിൽ നിന്നുളവാകുന്ന വികാര വിക്ഷോഭങ്ങൾ മറ്റൊരു ഭാഷയിലും നമുക്ക് കൈക്കൊള്ളാനോ ഉൾകൊള്ളാനോ കഴിയുകയില്ല അതിനാൽ മാതൃഭാഷ തന്നെയാണ് എപ്പോഴും മനോഹരം